അതെ ആധാർ മാറ്റുന്നതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു ആധാറിലുള്ള എനിക്ക് റീസെൻ്റായിട്ട് ആധാർ മാറ്റേണ്ട ആവിശ്യം ഉണ്ട് അതിനാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയേണ്ടതായി ഉണ്ട് ഇപ്പോൾ ആധാർ മാറ്റുമ്പോൾ ഞാൻ എന്തൊക്ക വിശദാംശങ്ങളാണ് പുതിയതായി കൊടുക്കാനുള്ളത് അതിന് ഞാൻ എവിടെയാണ് പോവേണ്ടത് അടുത്തുള്ള അക്ഷയ സെൻ്ററ് ബന്ധപ്പെട്ടാൽ മതിയോ അതോ ഏതെങ്കിലും ഗവൺമെൻ്റ് സ്ഥാപനങ്ങളിൽ സ്ഥാപനത്തിൽ പോവേണ്ടതായുണ്ടോ അപ്ഡേറ്റ് മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഞാൻ എൻ്റേതായ ഡോക്യൂമെൻ്റ്സ് അപ്ലോഡ് ചെയ്താൽ മതിയാകുമോ അതോ അതിനെന്തെങ്കിലും ശുപാർശയോ കാര്യങ്ങളോ വേണ്ടതായി ആ വേണ്ടതായുണ്ടോ എവിടെപ്പോയാലാണ് എനിക്കിതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞ് എത്ര നാൾ എടുക്കുമായിരിക്കും ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുതിയ ആധാർ പുതിയ വിശദാംശങ്ങളുള്ള ആധാർ എൻ്റെ കയ്യിൽ കിട്ടാനായി അതും എനിക്ക് അറിയേണ്ടതായുണ്ട് സ്ഥലത്തിലുള്ള വ്യത്യാസങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ഡാറ്റയിൽ ഉള്ള വ്യത്യാസവും കാര്യങ്ങളും എല്ലാം എനിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാലേ ഞാൻ കൊടുക്കുന്ന അപ്ഡേറ്റ് പൂർണ്ണമായോ ഇല്ലയോയെന്നുള്ളത് എനിക്ക് അറിയാൻ സാധിക്കു